ഇന്നത്തെ തലമുറയിൽ കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കണമെങ്കിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യേണ്ടിരിക്കുന്നു കാരണം ഇന്നത്തെ തലമുറ കൃഷി കാര്യങ്ങളില് താൽപര്യമില്ലാത്തവരായിട്ട് മാറുന്നുണ്ട് കൃഷിയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം കൃഷി നമ്മുടെ പൂർവികരിൽ നിന്ന് ലഭിച്ച പാരമ്പര്യമായിട്ടുള്ള കൃഷിരീതികള് പലവിധം കൃഷികള് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഗ്രാമങ്ങളില് ചെയ്തുവരുന്നുണ്ട് കുരുമുളക് കൊക്കോ കാപ്പി ഗ്രാമ്പു ഏലം തേയില തുടങ്ങിയ അനേകം കൃഷികളുമുണ്ട് നമ്മുടെ കുട്ടികള് ഇപ്പോൾ പഠനത്തിന് ശേഷം വിദേശങ്ങളിലേക്ക് കടന്നുപോകുന്നൊരു സാഹചര്യമാണുള്ളത് നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തിക അസ്ഥിരതാവസ്ഥയാണ് ഇതിന് കാരണം സാമ്പത്തികമായിട്ട് ഉന്നമനം നേടണമങ്കില് കൃഷിയെ ആശ്രയിച്ചിട്ട് കാര്യമില്ലെന്നുള്ളൊരു ബോധ്യമാണ് കുട്ടികൾക്കുള്ളത് പക്ഷേ കൃഷി നമ്മള് കൃത്യമായിട്ട് പരിചരണം നൽകി അനേകം നല്ല കൃഷിരീതികളുണ്ട് കൃത്യമായ പരിചരണം കൃഷികൾക്ക് നൽകിയാൽ നല്ല വളങ്ങൾ ജൈവ വളങ്ങൾ ഉപയോഗിക്കുക കൃത്യമായിട്ട് പരിചരണം നന തുടങ്ങിയ കാര്യങ്ങള് നടത്തുക വളം ചെയ്യുക കൃത്യസമയങ്ങളില് ഇടവേളകളിലെല്ലാം സമയാസമയങ്ങളിൽ ചെയ്താല് നല്ല വിളവുകള് നമുക്ക് ലഭിക്കും നല്ല വിലയും ഉണ്ടെങ്കില് സാമ്പത്തികമായിട്ട് ഒരു കുടുംബത്തില് ഉന്നമനം നേടുവാനായിട്ട് സാധിക്കും കൃഷി ഒരിക്കലും നമുക്ക് നഷ്ടമല്ല നമുക്ക് അദ്ധ്വാനം നമ്മുടെ കൃഷി ഇടങ്ങളില് അദ്ധ്വാനം ചെയ്യുകയെന്നുള്ളത് നമുക്ക് എപ്പോഴും നന്നായിരിക്കും അദ്ധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കില് നമുക്ക് തീർച്ചയായിട്ടും കൃഷി മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ കാലാവസ്ഥയുടെ അനുകൂല സാഹര്യങ്ങള് ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ കൃഷി നന്നായിട്ട് ഫലം നൽകുകയുള്ളൂവെന്നാണ് അനുഭവമായിട്ട് തോന്നുന്നത്